പ്രമേഹത്തെ നേരിടാനായിട്ട് നമ്മൾ നാട്ടിൽ പിന്നെ കൂടുതൽ നമ്മൾ പഞ്ചസാര പഞ്ചസാരയുടെ ഉപയോഗം കുറക്കണം മധുരത്തിൻ്റെ കഴിവതും മധുരം നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക അങ്ങനെ മധുരം കുറയ്ക്കുക പിന്നെ അങ്ങനെ ഓരോരോ ഇതുകൾ പിന്നെ ഇൻസ് അങ്ങനെ മധുരം കുറയ്ക്കുക കഴിവതും മധുരംത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ പിന്നെ ചോറ് ചോറ് കഴിവതും ഒഴിവാക്കുക ചപ്പാത്തി മുതലായ സാധനങ്ങൾ ഒക്കെ കഴിക്കുക പിന്നെ നമ്മൾ ഇൻസുലി അപ്പം പിന്നെ നമ്മൾ കൂടുതലും നാട്ട് നമ്മളെ സ്വന്തം ഇതിൽ ചെയ്യാതെ പിന്നെ കഴിവതും ഡോക്ടറിൻ്റെ നിർദ്ദേശം പ്രകാരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ മധുരം കഴിവതും ഒഴിവാക്കുക പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ അവർ അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് അതും ഇതും ഒക്കെ മരുന്നുകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കാതെ ഡോക്ടർ ഡോക്ടർടെ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്നുകൾ കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുക പിന്നെ ഓരോരുത്തരും അങ്ങനെ ഓരോ ആൾക്കാരും പല പല പല പല പല ഇതുകളും പറയും നമ്മൾ പക്ഷേ അതിന് അനുസരിച്ച് അത് അനുസരിച്ചൊക്കെ ചെയ്യാതെ നമ്മൾ അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് ആയിരിക്കും നല്ലത് പിന്നെ പിന്നെ നമ്മൾ ഭക്ഷണം ഭക്ഷണം നമ്മൾ കഴിവതും ക്രമീകരിക്കുക പിന്നെ മധുരം മിഠായി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ചോറ് തുടങ്ങിയവ ഒക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക പിന്നെ അങ്ങനെ ഒക്കെ അങ്ങനെ ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ വ്യായാമം വ്യായാമം ചെയ്യുക അങ്ങനെ നമ്മുടെ ഒരു കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇപ്പം എന്താ നാട്ടുവൈദ്യം നാട്ടു വൈദ്യങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഓരോ ഓരോ എന്തോ വെച്ചു ഷുഗറ് കുറയാനായി എന്താ ചെയ്തത് എന്ന് പറയുന്നത് വെച്ചാൽ ഓരോ നാട്ടുവൈദ്യങ്ങളും പല പല മരുന്നുകളും നമ്മൾ ഓരോ ഇല ഇലകൾ എന്തു ഇല എന്തു കുടിക്കോ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട്